യൂട്യൂബിൽ ആണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് സാൻജിയോ അല്ലെങ്കിൽ അനീസ് കിച്ചൻ വൈൽഡ് കുക്കിംഗ് ഇങ്ങനെയുള്ള കുറച്ച് യൂട്യൂബ് ചാനൽസാണ് കുക്കിങ്ങിൻ്റെ അവരാണെങ്കിൽ അവരുടെ പ്രസേൻറ്റേഷൻസ് ഒക്കെ ആണെങ്കിൽ നല്ല രീതിയിലാണ് ചെയ്യുന്നത് നമുക്ക് ആണെങ്കിലും അത് കണ്ട് കഴിയുമ്പോൾ തന്നെ നമുക്കും അത് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് അത് എന്താ പറയുക നമ്മൾ ഇപ്പം നമുക്ക് ചെയ്യാനായിട്ടാണെങ്കിൽ നമുക്ക് ഒരു താല്പര്യം തോന്നുന്ന രീതിയിലാണ് അവരുടെ പ്രസേൻറ്റേഷനും കാര്യങ്ങളും അവർ ചെയ്യുന്നത് അവരുടെ നമുക്ക് അവർ പറയുന്ന ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ ആ ഒരു സംസാരിക്കുന്ന രീതിയിലൂടെ ആണെങ്കിലും നമുക്ക് അവരോട് അവർ ചെയ്യുന്ന പാചകത്തിനോട് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഓരോ ഡിഷെസിനോടും ഭയങ്കര അട്ട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് തോന്നും നമുക്ക് അത് പിന്നീട് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ പിന്നത്തേകിൽ അത് മാറ്റി വെക്കാനായിട്ട് നമുക്ക് ഒരു ചിന്ത തോന്നില്ല നമുക്ക് അപ്പോൾ തന്നെ ചെയ്യാനായിട്ട് നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് ആ അവരുടെ പ്രസേൻറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെയൊരു ഫീലാണ് തോന്നുന്നത് അവരുടെ ഓരോ ഡിഷസ് ഒക്കെ ആണെങ്കിലും നല്ല രീതിയിലാണ് അവർ പ്രസേൻറ്റേഷൻ ചെയ്യുന്നതും നല്ല രീതിയിൽ ആണെങ്കിലും അവർ ചെയ്യുന്ന പ്രസേൻറ്റേഷൻ ചെയ്യുന്നത് മാത്രമല്ല അവർ അതിനെ കുറിച്ച് സംസാരികുന്നതും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നതും എല്ലാം വൃത്തിയോടെയും നല്ല രീതിയിലും ഒക്കെയാണ് അവർ ചെയ്യുന്നത്